ഹലോ ഇത് മന്തി റെസ്റ്റോറന്റ് അല്ലെ ഇവിടുന്ന് ഞാൻ ഫുഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ വിളിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഫുഡ് വളരെ മോശമാണ് ഫുഡ് ഫുഡിന് ക്വാളിറ്റി വളരെ മോശമാണ് ഇത് തലേന്നത്തെ ഫുഡ് ആണോ എന്ന് സംശയമുണ്ട് ഫുഡിന് ഒട്ടും ക്വാളിറ്റി ഇല്ല എനിക്ക് ഒന്നുങ്കിൽ ഫുഡ് മാറ്റി തരണം അല്ലെങ്കിൽ ഫുഡിൻ്റെ മണി റീഫണ്ട് ചെയ്യണം ഞാൻ തൽക്കാലത്തേക്ക് ഇത് വിട്ടേക്കുവാണ് ഇനി മര്യാദയ്ക്ക് താൻ കസ്റ്റമേഴ്സിന് നല്ല ഫുഡ് കൊടുക്കണം അല്ലെങ്കിൽ ഞാൻ ഫുഡ് കൺസ്യൂമർ കോർട്ടിൽ റിപ്പോർട്ട് ചെയ്യും ഇതിലൂടെ നിങ്ങൾക്ക് ഒരു നല്ലൊരു എമൗണ്ട് റീഫണ്ട് ചെയ്യേണ്ടിവരും അത് കൊണ്ട് ഫുഡ് നല്ല ഫുഡ് എനിക്ക് ഇപ്പോൾ തന്നെ വീട്ടിൽ കൊണ്ട് തരണം അല്ലെങ്കിൽ റീഫണ്ട് ചെയ്യണം തനിക്ക് ഒക്കെ ഒരു ഒരു നല്ല ക്വാളിറ്റി ഫുഡ് അല്ലേ മറ്റേ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് കൊടുക്കേണ്ടത് നല്ല ക്വാളിറ്റി ഫുഡ് കൊടുത്തൂടെ ഇത് കഴിക്കുന്ന മനുഷ്യർ തന്നെയല്ലേ അപ്പോൾ അതിന് അനുസരിച്ച് ക്വാളിറ്റി ഫുഡ് കൊടുക്കുക അല്ലെങ്കിൽ ഇത് പോലീസ് കേസ് ആകും അതുകൊണ്ട് മര്യാദയ്ക്ക് നല്ല ക്വാളിറ്റി ഫുഡ് കൊടുക്കുക എനിക്ക് ഇപ്പോൾ എൻ്റെ ഫുഡ് വീട്ടിൽ കൊണ്ട് തരിക അല്ലെങ്കിൽ റീഫണ്ട് ചെയ്യുക